ഹലോ ഇത് ഗ്യാസ് ബുക്കിംഗ് ഏജൻസി ആണോ ഞാൻ വിളിക്കുന്നത് ഞാൻ മാളവിക ഞാനിവിടെ മുരിക്കാശ്ശേരി വാർഡ് നമ്പർ രണ്ടില് വീട്ട് നമ്പർ നാനൂറ്റി പതിനെട്ടിലെ ആളായിരുന്നു ഹലോ ഞാൻ നേരത്തെ ഒന്ന് വിളിച്ചിരുന്നു നിങ്ങളുടെ റെസ്പോൺസ് ഒന്നും കാണാത്തത് കൊണ്ട് വീണ്ടും വിളിക്കുന്നതാണ് പ്ലീസ് എനിക്ക് വേഗം ഞാൻ ഇങ്ങോട്ടേക്ക് സ്ഥലം മാറിയിട്ടിപ്പോൾ ഏകദേശം ആറ് മാസം ഒക്കെയായി എനിക്കിതുവരെ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ഒരു റിപ്ലൈ ലഭിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഞാന് ഇവിടെ ഗവൺമെൻറ്റ് സർവീസ് ജോലിയാണ് അപ്പം എനിക്ക് നല്ല തിരക്കുണ്ട് എന്തായാലും ഗ്യാസ് കിട്ടാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ സോ നിങ്ങള് എന്തായാലും റിപ്ലൈ തരുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആധാർ കാർഡ് നമ്പറും ഫോൺ നമ്പരും ഇമെയിൽ ഐ ഡി ഒക്കെ ഞാന് മെയില് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തെങ്കിലും റിപ്ലൈ ഉണ്ടെങ്കിൽ അത് തരിക കേട്ടോ എന്തായാലും എനിക്ക് കിട്ടാതെ മുമ്പോട്ട് പോവാൻ പറ്റില്ല കാരണം എനിക്ക് വീട്ടില് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട് ഹസ്ബൻഡ് ജോലിയാണ് മക്കളുണ്ട് മക്കള് സ്കൂള് പോകണം അപ്പം ഗ്യാസ് കിട്ടുവാണേൽ വളരെ എളുപ്പുണ്ട് എനിക്ക് രാവിലെ ഏഴര ആകുമ്പത്തേക്ക് ഓഫീസിലെത്തണ്ടതായിട്ടുണ്ട് അപ്പം ഗ്യാസാണെങ്കിൽ എളുപ്പമുണ്ട് അടുപ്പില് കുക്ക് ചെയ്തുള്ള പരിചയമൊന്നും ഇല്ല അപ്പം നിങ്ങളൊന്ന് ഹെല്പ് ചെയ്യുകയാണേൽ വലിയ ഉപകാരമായിരുന്നു ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല നിങ്ങളെന്തെങ്കിലും റിപ്ലൈ തരൂ അല്ലെങ്കിൽ ഒന്ന് തിരിച്ച് വിളിക്കുകയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താ റീസൺ എന്നെങ്കിലും അറിയാം ഇതിപ്പം ഒന്നും പറയാത്തത് കൊണ്ട് എനിക്ക് കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം നിങ്ങളൊന്ന് ഹെല്പ് വലിയ ഉപകാരം ആയിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്തെങ്കിലും ഡൗട്ട്സ് സംതിങ്ങ് ചോദിക്കാനുണ്ടെങ്കിൽ പറഞ്ഞാലും മതി ഇല്ലെങ്കിൽ പിന്നെ ഞാന് എന്ത് ചെയ്യണം വേറെ ഏതെങ്കിലും ഏജൻസിയായിട്ട് ബന്ധപ്പെടണമെങ്കിൽ അത് പറയുക എന്തായാലും നിങ്ങളറിയിക്ക് നിങ്ങളറിയിക്കാതെ എനിക്ക് വേറൊരു മാർഗവും ഇല്ലല്ലോ നിങ്ങളെന്തെങ്കിലും പറഞ്ഞാല് എനിക്കെന്താ ബുദ്ധിമുട്ടെന്ന് അറിയുള്ളൂ കാരണം ഇപ്പം ആറ് മാസമായി അദ്യത്തെ വൺ മന്തില് ഞാൻ ബുക്ക് ചെയ്തതാണ് സൊ ഇതുവരെ എത്താത്തത് കൊണ്ട് എനിക്ക് വീണ്ടും ആപ്ലിക്കേഷൻ വെക്കേണ്ട വന്നതും അയക്കേണ്ട വന്നതും അപ്പം ഇതുവരെ ഒന്നും പറയാത്തത് കൊണ്ടാണ് ഞാനിപ്പം വിളിക്കുന്നത് നിങ്ങ എന്താണ് എന്ന് നിങ്ങളുടെ ഓഫീസറോട് ചോദിച്ചിട്ട് പറയാൻ പറ്റൂ എന്നല്ലേ ഓക്കെ നിങ്ങളെങ്കിൽ മെയിൻ ഹെഡ് ഓഫീസറോട് ചോദിക്കുക എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ആധാർ കാർഡും ഐ ഡി പ്രൂഫൊക്കെ അയച്ചിട്ടുണ്ട് സ്ഥലം മാറിയതിൻ്റെ അഡ്രസ് അയച്ചിട്ടുണ്ട് എവിടെ നിന്ന് വന്നൂ എന്നൊക്കെ ഉണ്ട് ഞങ്ങള് കട്ടപ്പനയിലായിരുന്നു താമസം അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടിപ്പോൾ ഏകദേശം രണ്ടാഴ്ചയെ ആയിട്ടുള്ളൂ അപ്പം രണ്ടാഴ്ച്ച ആയിട്ടിവിടെ പെർമനെന്റ് സെറ്റിൽ ആയിരുന്നു അതിനുമുമ്പ് ആറ് മാസമായിട്ട് ഇവിടെ വാടകയ്ക്ക് ആയിരുന്നു പിന്നെ വീടും സ്ഥലവും ഞങ്ങള് വാങ്ങിച്ചു അപ്പം അതിൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നിങ്ങളൊന്ന് പറയുകയായിരുന്നെങ്കിൽ ഓഫീസറോട് ചോദിച്ചിട്ടെങ്കിൽ ഇന്ന് തന്നെ റിപ്ലൈ തരാനായിട്ട് പറ്റുമോ ഇന്ന് തന്നെ തരികയായിരുന്നെങ്കിൽ വലിയ ഉപകാരം എന്ന് വിചാരിക്കുന്നു അപ്പം എന്താണ് റിപ്ലൈ എങ്കില് ഒന്ന് പറയണം കേട്ടോ ഇല്ലെങ്കില് എനിക്ക് ബുദ്ധിമുട്ടാണ് ഓഫിസിൽ ലേറ്റ് ആയി ചെല്ലേണ്ട അവസ്ഥ വരാറുണ്ട് കുക്ക് ചെയ്തിട്ട് ഹസ്ബൻഡിനും ഫുഡ് കൊണ്ടുപോകണം കുട്ടികൾക്കും സ്കൂളിൽ ഫുഡ് കൊണ്ടുപോകണം അപ്പം എന്തായാലും എനിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് അപ്പം നിങ്ങളൊന്ന് പറയുവായിരുന്നെങ്കില് വലിയ ഉപകാരം ഉണ്ടായിരുന്നു ഓക്കെ എങ്കിൽ നിങ്ങള് ഓഫീസറോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ അറിയിക്കുവാണേൽ വലിയ ഉപകാരം താങ്ക്യൂ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കില് ഞാൻ ഹസ്ബന്റിൻ്റെ മെയിൽ ഐഡിയും കൂടെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് മെയിൽ ഐ ഡി ഫോൺ നമ്പറും ഹസ്ബൻഡ് ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടട്രായിട്ട് മുരിക്കാശ്ശേരി സ്റ്റേഷനിൽ വർക്ക് ചെയ്യുകയാണ് അപ്പം പുള്ളിയുടെ നമ്പർ അയച്ചിട്ടുണ്ട് അതിലേക്ക് വിളിച്ചാലും മതി ഇനി ഇപ്പം അതിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ ഓഫീസ് നമ്പറും പേഴ്സണൽ നമ്പറും ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു റിപ്ലൈ ഇടുകാട്ടോ മെസ്സേജ് അയച്ചിട്ട് കാണാത്തത് കൊണ്ടാണ് ഇപ്പം മെയിൽ ചെയ്യേണ്ട വന്നാൽ അപ്പം നിങ്ങള് മെയില് ഒന്ന് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പറയുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപേക്ഷ ഇനി അഡീഷണലായിട്ട് വേണമെന്നുണ്ടെങ്കിലും അയച്ചു തരാം കേട്ടോ